അതെ ആ ഞാൻ ഇന്ന് കോഴിയുണ്ട് പന്നിയുണ്ട് പോത്ത് ഉണ്ട് നല്ല പോത്തിറച്ചിയൊക്കെ ഉണ്ട് പന്നിയുണ്ട് കോഴിയുണ്ട് പിന്നെ കോഴി വേണോ ബ്രോയിലർ അല്ല അല്ല ബ്രോയി ബ്രോയിലർ കോഴിയാണോ കിലോയ്ക്ക് ആ കിലോ നൂറ്റി നാൽപ്പത് രൂപ ഉപയോഗിക്ക് ആ ആ ആ ശരി ഇന്ന് വന്നില്ല നാളെ കാണുമായിരിക്കും പിന്നെ പന്നി വേണോ പന്നി വേണോ നല്ല പന്നിയെറച്ചിയുണ്ട് നെയ്യ് അത് തൊലിയൊക്കെ അത് മാറ്റിത്തരാം നിങ്ങൾ വരുമ്പോൾ എത്ര കിലോ വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി അതൊക്കെ മാറ്റീട്ട് നല്ല നല്ല ഫ്രഷായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ഇറച്ചി തരാം ആ അതെ പിന്നെ ആ ആ ബി ആ ബീഫ് ആ ആ ഹ ഹ ഹ ബീഫ് വേണോ ബീഫ് വേണോ ആ ഹ വെച്ചേക്കാം ബീഫോ അല്ല പന്നിയോ ബീഫിന് നാന്നൂറ് രൂപ കിലോ പന്നിക്ക് മുന്നൂറ് രൂപ ആ ഇല്ല നെയ്യൊക്കെ മാറ്റി മാറ്റിത്തരും സ്ഥിരം മേടിക്കുന്നവർക്ക് പ്രത്യേകം കൊടുക്കുന്നതാണ് ആ ആ ആ ആ ഉണ്ടൊണ്ടൊണ്ട് ആ ആ ആ ഓക്കേ ഓക്കേ ആ ആ എത്ര കിലോ വേണം പാ പന്നി എത്ര കിലോ വേണം ആ ബീഫോ

ആ അത് കട്ട് ചെറുതായിട്ട് ക ചെറുതായിട്ട് കട്ട് ചെയ്യണോ അതോ നമ്മൾ കറിവെക്കാൻ രീതിയിൽ കട്ട് ചെയ്യണോ അതോ അല്ലാതെ മതിയോ ആ ഹാ ഹ ഹ ഓക്കെ ആ എ ഇല്ല ഇല്ല ഇല്ല ആ ഹാ ഹ ആ ഓക്കേ ആ ഹ ഹ ആ ഹ ഹ ആ ആ പിന്നെ നാളെ ആണേലും ആ നാളെ ആണേലും എടുക്കാമല്ലോ അതെ ആ പിന്നെ ആ അല്ലേ ആളിനെ ഇപ്പാരെയും വിട്ടാൽ അല്ലേ ആരേലും വിട്ടാൽ മതി ഞങ്ങൾ ഇവിടെ എടുത്തു മാറ്റി വെച്ചേക്കാം നല്ലത് നോക്കി ആ ആ ആ ഓക്കെ ആ ആ പിന്നെ ആ ഓക്കെ ആ ഇല്ല ഇല്ല ഇല്ല ആ ശരി എന്നാൽ ഓക്കെ ആ